കൃഷി മൃഗസംരക്ഷണം ചെറുകിട ബിസിനസ് മരപ്പണി അറ്റകുറ്റപ്പണികൾ മിൽ കോഴി വളര്ത്തൽ പശു വളര്ത്തൽ തുടങ്ങിയ പ്രാദേശിക തൊഴിലുകളെക്കുറിച്ച് കുട്ടികൾ അവരുടെ സ്കൂള് വിദ്യാഭ്യാസത്തില് തന്നെ പഠ പഠിക്കണമെന്നാണ് എന്റെ അഭിപ്രായം അതായത് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ സിലബസിൽ അല്ലെങ്കില് ഒരു വിദ്യാഭ്യാസത്തിന്റെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസത്തിന്റെ സിലബസില് ഒതുങ്ങി കൂടാതെ നമ്മുടെ വിദ്യാഭ്യാസ സിലബസില് ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ഉള്പ്പെടുത്തേണ്ടി വരുന്നു അതായത് വെറുതെ പാഠപുസ്തകങ്ങളെ അറിവുകള് മാത്രമല്ലാതെ അത് ശരിക്കനും ഒരു കോണ്ക്രീറ്റ് ആയി പോകും അപ്പം നമുക്കതിനെ പ്രാവര്ത്തികമാക്കാനും കൂടിയുള്ള ഒരു അവസരം നമ്മുടെ വിദ്യാഭ്യാസത്തില് കൂട്ടിച്ചേര്ക്കണമെന്നാണ് എന്റെ അഭിപ്രായം ഒപ്പം ഒരു ദിവസത്തില് നമുക്ക് എട്ട് മണിക്കൂറാണ് ക്ലാസ് എങ്കില് നമ്മുടെ കുട്ടികളെ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് എങ്കില് സ്കൂളില് അതിനകത്ത് നാല് മണിക്കൂർ അവര്ക്ക് വിഷയങ്ങളെ പറ്റി പറ്റിയുള്ള അറിവ് നല്കുകയും ബാക്കി നാല് മണിക്കൂർ അത് പ്രാവര്ത്തികമാക്കാനുള്ള ചില അവസരങ്ങള് കൊടുക്കുകയും ചെയ്യണമെന്നാണ് എന്റെ അഭിപ്രായം അങ്ങനെ വരുമ്പോള് കുട്ടികള്ക്ക് അതിൽ കൂടുതൽ പ്രഗത്ഭരാവാനും നല്ല വൈപുണ്യം നേടാനും കഴിയുമെന്ന് ഞാന് വിശ്വസിക്കുന്നു പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് സ്കൂളുകളിലും വീട്ടിലും ഉള്ള അറിവുകളാണ് കുട്ടികള്ക്ക് ഏറെ പ്രയോജകനം പ്രയോജനകരം നമ്മൾ ഒരു സ്കൂള് വിദ്യാഭ്യാസത്തിന് ശേഷം ഇതെല്ലാം പഠിക്കാന് നിന്നാൽ നമുക്കതത്ര പ്രാവര്ത്തികമാക്കാന് കഴിയണമെന്നില്ല അപ്പോള് സ്കൂള് വിദ്യാഭ്യാസത്തില് കൂടെ തന്നെ കൊണ്ടുപോവേണ്ട കാര്യങ്ങളാണ് ഇവ എല്ലാവരും ഇങ്ങനെയുള്ള തൊഴിലുകളെല്ലാം അതിന് അധ്യാപകരും മാതാപിതാക്കളും സഹകരിച്ച് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ വിദ്യാഭ്യാസത്തിന്റേതായിട്ടുള്ള സിലബസ് അങ്ങനെയും കൂടി ഉള്പ്പെടുത്തണമെന്ന് ആണ് എന്റെ അഭിപ്രായം